മീൻ അല്ലെങ്കിൽ മത്സ്യം എന്നു പറയുന്നത് പല തരത്തിലുണ്ട് അപ്പം ഞാൻ അധികം മത്സ്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾ അല്ല എന്നാലും എൻ്റെ പ്രിയപ്പെട്ടത് എന്നു പറയുന്നത് ചെമ്മീനാണ് ചെമ്മീൻ ചമ്മന്തിയാണ് പ്രത്യേകിച്ചു അപ്പോൾ എനിക്ക് വളരെ ഉള്ള മത്സ്യങ്ങളിലേറ്റവും ഇഷ്ടമുള്ള ഒരു മത്സ്യമാണ് പിന്നെ നത്തോലി എന്ന് പറയുന്ന ഒരു മീൻ ഉണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട മത്സ്യം എന്നു പറയുന്നത് അപ്പം പിന്നെ മീനെന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക കടൽ തീരത്ത് അയില മത്തി കണവ എന്നു പറയുന്ന കുറേ മീൻ ആ കണവയും നല്ല ഒരു ഇതാണ് അപ്പം പിന്നെ എൻ്റെ ഭാഗത്ത് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് തോന്നുന്നു മത്തിയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നത് കാണുന്നത് ആ ഒരു മീനാണ് അപ്പോൾ ഇപ്പം മീൻകറി എന്നു പറയുമ്പം കടൽ തീരത്തൊക്കെ നിൽക്കുന്നവർക്ക് മീൻകറി എന്നു പറയുന്നത് ഭയങ്കരമൊരു വികാരമാണ് ചോറും മീൻ കറി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു വികാരപ്പെട്ട ഒരു ഭക്ഷണമാണ്